എനിക്ക് പ്രൊഡക്റ്റ് ഭയങ്കര ഇഷ്ടമാണ് നല്ല പ്രൊഡക്റ്റ് ആണ് പ്രൊഡക്റ്റ് റ്റ് എനിക്ക് ലഭിച്ചത് മൊബൈൽ ഫോൺ ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ അല്ല സോറി ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയും നല്ലൊരു മൊബൈൽ ഫോൺ കിട്ടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ല ഒരു കാര്യമാണ് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഫീച്ചേഴ്സ് ആണെങ്കിലും അത് ആദ്യം തന്നെ കാണാൻ തന്നെ നല്ല രസമായിരുന്നു അത് കണ്ട് അത് നോക്കി അതിൻ്റെ കളർ പിന്നെ അത് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ഈസിനെസ്സ് എല്ലാം വളരെ രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല രസമാണ് ഹാൻഡിൽ ചെയ്യാനും കൊണ്ട് നടക്കാനും ഒക്കെ വളരെ എളുപ്പമാണ് നല്ല സുഖമാണ് എനിക്ക് ഓവറോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ പിന്നെ അതിൽ അത്ര വലിയ പോരായ്മ എന്ന് പറയാൻ ഒന്നുമില്ല പിന്നെ പെട്ടെന്ന് ചാർജ് ആവുന്നുണ്ട് പെട്ടെന്ന് ചാർജ് ആവുന്നുണ്ട് അതുതന്നെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ആണ്